നമുക്ക് ലഡ്ഡു വേണമായിരുന്നു സാറേ എങ്ങനാണി എങ്ങനാണിപ്പോൾ റേറ്റ് കൂടിട്ടുണ്ടോ കുറവുണ്ടോ റേ റേറ്റെങ്ങനാണ് ആ ലെഡ്ഡല്ല മറ്റൊരു സാധനവില്ലേ കേക്ക് ട് പേര് പേട പേടപോലത്തെ സാധനവില്ലേ അതെങ്ങനെയാണ് പേട അപ്പോൾ അപ്പോൾ ലഡ്ഡു ആയിക്കോട്ടെ ലഡ്ഡു എത്രയാണ് റേറ്റ് അപ്പോൾ നമുക്കൊരു പത്ത് കിലോ പത്ത് കിലോ മതി സാധാരണ നമുക്കൊരു ആറ് ആറുന്നു ആറുന്നൂറ് പീസ് വേണം

ആ നാപ്പതുകൂടെ ഇരിക്കട്ടെ ആ വേണ്ടിവരും വേറെ കൊടുക്കാണ്ട് ആ അപ്പോൾ നാളെ കിട്ടോ നാളെ ഒരു വൈകുന്നേരം ആമ്പളേക്ക് പിന്നെ പിന്നെ പിന്നെ നല്ല ക്വാളിറ്റി വേണം നല്ല ക്വാളിറ്റി വേണേട്ടോ

അപ്പോൾ സാധനം മതി സാധനം മതി

ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ ശരിയാക്കാം അപ്പോൾ നാളെ വൈകുന്നേരം വരാം ആ ക്യാഷ് നേരത്തെ ആക്കാം കേട്ടോ

ആ ഞാൻ വരാം അങ്ങോട്ട് വരാം ആ അപ്പമൊരു ആ അറിയാറിയാ കണ്ട് അപ്പോൾ നാളെ വൈകുന്നേരം റെഡീല് വെയ്ക്ക് ക്യാഷ് നാളെ അഡ്വാൻസ് വേണോ ആ ഗുഗിൾ പേ അയക്കാം രണ്ട് പേര് രണ്ടായിരം രൂപ ഗുഗിൾ പേ അയക്കാം ഓ നാളെ രാവിലത്തെ ഞാൻ നാളെ രാവിലെ വരും ഓക്കെ നാളെ കാണാം ഓക്കെ നാളെ വരാട്ടോ ഓക് ഓക്കെ താങ്ക് യൂ ഓക്കെ താങ്ക് യൂ